ഞാൻ പാട്ടുകൾ സെലക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം തന്നെ അത് ആ നമ്മുടെ ചുവട് ചുവടിനൊത്ത് നീങ്ങുന്ന പാട്ടാണോ എന്ന് നോക്കും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ് ആയിട്ട് കാണികൾക്ക് അത് അവർ അവരത് ആ ഒരു പാട്ടിനെ എങ്ങനെ എടുക്കും എന്നുള്ളൊരു രീതിയാണ് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഓരോ സമയം മാറിക്കൊണ്ടിരിക്കും തോറും ട്രെൻഡുകൾ പലതായി കൊണ്ടിരിക്കുവാണ് അപ്പം പുതിയ പുതിയ പാട്ടുകൾ വെച്ച് നൃത്തം ചെയ്യാനാണ് എനിക്കിഷ്ടം പിന്നെ നമ്മുടെ ആ ഒരു താളത്തിനൊത്ത് ഒതുങ്ങുന്ന പാട്ടാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്